ഉൾനാടൻ പ്രേദേശത്ത് പ്രാദേശിക കാർഷിക കാർഷിക വ്യവസായത്തിനു വേണ്ടീട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണമെന്നുവെച്ചാൽ ഈ കന്നുകാലി വളർത്തൽ കന്നുകാലി വളർത്തലിനൊക്കെ നമ്മുടെ കന്നുകാലി വളർത്തുന്നവർക്ക് കൂട് കന്നുകാലിൻ്റെ ആല നിർമിച്ചു കൊടുക്കാനുള്ള സംരംഭം ഒക്കെയുണ്ട് അതുപോലെത്തന്നെ ഇപ്പോൾ കന്നുകാലി വളർത്താനുള്ള ഇപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ട് എന്താവച്ചാൽ പശുവിനെ തരാനുള്ള സംവിധാനം ഉണ്ട് അതുപോലെത്തന്നെ കാർഷിക കർഷകർക്കായിട്ടുള്ള ചന്തകൾ ഇപ്പോൾ ഉണ്ട് ഒരുപാട് അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ തിങ്കളാഴ്ച ദിവസങ്ങളിലായിരിക്കും ചന്ത അപ്പോൾ അങ്ങനെ കാർഷിക പിന്നെ പിന്നെ അതുപോലെത്തന്നെ എന്താ പറയുക വില്പനയ്ക്കായിട്ട് കാർഷിക ഉൽപന്നങ്ങൾ വിൽക്കാനായിട്ട് ഒരുപാട് സംരംഭങ്ങളുണ്ട് ചന്ത ആയിട്ടുണ്ട് അതുപോലെത്തന്നെ ഇപ്പോൾ ഈ റോഡ് വഴിവക്കത്ത് ഒക്കെ ഇങ്ങനെ വിൽക്കുന്ന അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കന്നുകാലികൾക്കാണെങ്കിലും കന്നുകാലികൾക്ക് ആല നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് കന്നുകാലികളെ ആവശ്യം ഉള്ളവർക്ക് അതിനായിട്ടുള്ള ലോണുകളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്